എനിക്ക് വളർത്ത് മൃഗങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മെയ്നായിട്ടെനിക്ക് പട്ടി പൂച്ച അങ്ങനെയുള്ള പിന്നെ അണ്ണാനെ ഇഷ്ടമാണ് പക്ഷേ ഞാനത് വളർത്തിയിട്ടൊന്നുമില്ല പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഏതൊക്കെ മൃഗങ്ങളാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കോഴിയുണ്ട് ഒരഞ്ച് കോഴിയുണ്ട് പശു ഉണ്ട് രണ്ടാടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഒരു പട്ടിയുണ്ട് സാധാ നാടൻ പട്ടി പിന്നെ രണ്ട് പൂച്ചയുണ്ട് അത് പൂച്ച സാധാ ഇങ്ങനെ വീട്ടിൽ വന്ന് കൂടിയ പൂച്ചയാണ് എനിക്ക് പയുകയാണെങ്കിൽ ഇവയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പട്ടിയെയും പട്ടിനെയാണ് അയ് അ അവൻ്റെ പേര് ജൂഡോയെന്നാണ് അവൻ നല്ലവണ്ണം ഭയങ്കര സ്നേഹമാണ് ഞാൻ എവിടെ പോയാൽ എവിടെയെങ്കിലും പോയിട്ടൊക്കെ വരുന്നത് വരെ അവൻ കാത്തിരിക്കും ഞാൻ കഴിച്ച ഞാൻ കൊടുത്താലെ കഴിക്കുകയുള്ളൂ അങ്ങനെയൊക്കെയൊരു മൈൻഡുള്ള ഒരു ഡോഗാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനത്തെ ഇതിനെയൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഇങ്ങനെ എല്ലാവരും ഇങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടൈം പോകുന്നത് അറിയേ ഇല്ല